മതം സംസ്കാരം ആചാരം ഈ മൂന്ന് വാക്കുകളെക്കുറിച്ച് പറഞ്ഞാലും അതിൽ സാങ്കേതിക നവീകരണം എന്ന ഒരു വാക്കേ അതിൽ വരുന്നില്ല കാരണം എന്താന്ന് ചോദിച്ചാ സംസ്കാരം ആചാരം അത് കാലാകാലങ്ങളായി തുടർന്ന് പോരുന്ന കാര്യങ്ങളാ അതിലൊരു സാങ്കേതിക നവീകരണവും വരുത്താൻ സാധിക്കില്ല ആർക്കും എല്ലാവർക്കും അവരവരുടെ മതത്തിൻ്റെ ഒരു വിശ്വാസങ്ങളും ആ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുള്ള കാര്യങ്ങളും ചെയ്യാൻ മാത്രമേ പറ്റുവൊള്ളൂ ചിലർ പറയും ഭയങ്കരാ ഞാൻ ഭയങ്കര പുരോഗമന ആശയാണ് എനിക്ക് അങ്ങനെയല്ല എൻ്റെ മതത്തിലത് പറയുന്നു അത് ഞാൻ ചെയ്യില്ല എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാ എല്ലാവർക്കും അവരുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ അല്ലേ അതിൽ പറയുന്നതേ അവർ ചെയ്യാറുള്ളൂ അതിപ്പം ആരുമാകട്ടെ ഏത് മതവുമാകട്ടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിക്ക് ഏതുമാവട്ടെ പക്ഷേ അതിനുള്ളിൽ നിന്നുള്ള കാര്യങ്ങളെ ആൾക്കാർ ചെയ്യാനുള്ളൂ ഒരിക്കലൂം അതിനെ സാങ്കേതികനവീകരണം കൊണ്ട് വരണമെന്നോ അതില് മാറ്റങ്ങള് വരുത്തണമെന്നോ ആരും ആഗ്രഹിക്കാറില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം അത് കാലാകാലങ്ങളായി തുടർന്ന് പോരുന്ന ആചാരങ്ങളാണ് കാലാകാലായി നിലനിന്ന് പോരുന്ന സംസ്കാരമാണ് അതിലേക്ക് പുതിയ സാങ്കേതിക വശങ്ങളൊന്നും കൊണ്ട് വരണമെന്ന് ആരും തന്നെ ആഗ്രഹിക്കാറില്ല പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് മറ്റ് കാര്യങ്ങൾ പോലെ നമുക്ക് പുതുമ പുതുമ എന്നും ഇതിൽ അവകാശപ്പെടാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല അത് വർഷങ്ങളായി നിലനിന്ന് പോരുന്ന കാര്യങ്ങളാണ് അതിൽ പ്രത്യേകിച്ചൊരു കാര്യം ഒരാൾക്ക് ചെയ്യാനോ അതിനിപ്പം സാങ്കേതിക കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല ഇതിപ്പം എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നു ഇപ്പം ഇതിപ്പം ഇപ്പം യേശു തന്നെ അദ്ദേഹത്തിൻ്റെ ഇതും അന്നത്തെ ഇത് തന്നെയല്ലേ നമ്മൾ ഇപ്പോഴും പറയുന്നത് അല്ലേ ഇപ്പം ശബരിമലയാകട്ടെ അത് പണ്ടത്തെ കാര്യം തന്നെയാ ഇപ്പോഴും പറയുന്നത് അല്ലേ ഇപ്പം മക്കയാകട്ടെ അതിനെക്കുറിച്ച് ഇപ്പോഴും അത് തന്നെയാ പറയുന്നത് അതിനു പുതിയ സാങ്കേതിക കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ലല്ലോ അല്ലേ മക്കയിലിപ്പം അവിടെ എന്താ എന്താ കല്ലെറിയുന്നു അത് മാറ്റി വേറൊരു കാര്യമാക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല അല്ലേ ഇപ്പം ദാ ശബരിമലയ്ക്ക് പോകുന്നവർ അവരിപ്പം കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് പോകുന്നു അടുത്ത ദിവസം തൊട്ടത് വേറെ സാങ്കേതികവശം കെട്ടില്ലാതെ പോകാം അങ്ങനെയൊന്നും ഒന്നിലും ഒരിത് മാറ്റം ഒരിക്കലും വരില്ല അതങ്ങനെ വരരുത് എന്ന് തന്നെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്